ആ കേൾക്കുന്നുണ്ടോ മാഡം ഓക്കെ ഇത് പറഞ്ഞോളു മേഡം ഞാൻ കേൾക്കുന്നുണ്ട് ഹലോ ആ അത് ഞാൻ ആ നമ്മളതിൻ്റെ ഒരു ഏജൻ്റാണ് നമ്മൾ അപ്പോൾ ഈ കുറച്ച് തുണികളെടുത്തിട്ട് നിങ്ങളുടെ അടുത്തു നിന്ന് എടുത്ത് വിൽക്കാമെന്നോർത്ത് ആയിരുന്നു അപ്പം നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ ആയിട്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ നിന്നെടുത്ത് ഞാൻ കൊണ്ടുപോയി വിറ്റാൽ എനിക്കതിന് എങ്ങനെയാണ് നിങ്ങൾ കമ്മീഷൻ തരുന്നതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നറിയാൻ ആയിരുന്നു ഏത് എല്ലാ ഡ്രസ്സിനുമോ അതോ ഓരോന്നിന് വിലയ്ക്ക് അനുസരിച്ചുള്ളതൊ കമ്മീഷൻ തരുമല്ലോ അപ്പം ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്തു നിന്ന് കൂടുതൽ സാധനം എടുത്തുകൊണ്ടുപോയി അതു മൊത്തവും എനിക്ക് വിറ്റഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും തിരിച്ചെടുക്കുമോ അപ്പോൾ അത് നിങ്ങൾക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ ഞാനിത്രയും സാധനം നിങ്ങളുടെ അടുത്തു നിന്ന് ഒന്നിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഞാനത് റിട്ടേൺ ചെയ്യുമ്പം നിങ്ങൾക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നറിയാനായിരുന്നു ആ ഞാനത് മാക്സിമം ശ്രമിക്കാം പക്ഷെ എന്നെക്കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കലാവസ്ഥയൊക്കെ വച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് യാത്ര ചെയ്യാനും ഇപ്പം മഴയൊക്കെ അയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളു അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ ഒന്നിച്ച് ഇത്രയും സാധനം എടുത്തുകൊണ്ട് പോകാം എതായാലും ഞാൻ എടുത്തുകൊണ്ട് പോകാം അതെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും മാക്സിമം ഞാൻ ചെയ്യാം അതാണ് ഓക്കെ അതൊക്കെ ചെയ്യാം പിന്നെ ഞാൻ ചെറിയ ചെറിയ കടകളിലൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് പോയി അവർക്ക് വേണമെങ്കിലും അവിടേക്ക് വേണമെങ്കിലും കൊടുക്കാമെന്നൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്താണെന്ന് നിങ്ങളുടെ തീരുമാനം അനുസരിച്ച് ചെയ്യാം അതെ ഞാൻ നേരത്തേത്തന്നെ അല്ല ഫസ്റ്റ് അല്ല അല്ല അല്ല എക്സ്പീരിയൻസുള്ള ആളാണ് വേറെ സ്ഥലത്തു നിന്നൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വിറ്റിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഞാനിങ്ങനെ ഇത് നടത്തിയിട്ടുള്ളതാണ് അപ്പം അത് ഇനിയിപ്പം അവിടം വരെ അത്ര ദൂരമൊക്കെ പോകാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ ആളും ഇല്ലാത്തതുകൊണ്ട് എന്നാൽ ഓർത്തു ഇനി അടുത്തുള്ള കടകളിൽ നിന്ന് എടുത്താലോ എന്നോർത്താണ് നിങ്ങളെ ഞാൻ സമീപിച്ചത് ഇനി നിങ്ങളുടെ താൽപ്പര്യം അനുസരിച്ചല്ലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളു അതുകൊണ്ടാണ് നിങ്ങളോട് നേരിട്ട് ചോദിക്കുന്നത്

ആ അല്ലെങ്കിൽ മാറ്റം വരുത്താതെ ആണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുത്തന്നാൽ നിങ്ങൾ തിരിച്ചെടുക്കുമല്ലൊ അല്ലേ

ഓക്കെ അങ്ങനെയാണ് ഓക്കെ ഓക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും രീതിയിൽ ഞാൻ ചെയ്യാം ബാലൻസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരാം ഞാൻ വണ്ടിയിൽ വരണമായിരിക്കുമല്ലേ വണ്ടിയിലായിരിക്കുമല്ലോ തന്നു വിടുക നിങ്ങൾ അത് റിസ്ക്ക് അല്ലേ എവിടെയെങ്കിലും മിസ്സായിപ്പോയാൽ എന്നാ എടുക്കും അത് റിസ്ക്ക് അല്ലേ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പം ഓക്കെ അപ്പം ഞാനൊരു കാര്യംകൂടി ചോദിച്ചോട്ടെ ഞാൻ ആദ്യം ഓൾറെഡി പൈസ തന്നെടുക്കണോ അതോ വിറ്റു കഴിഞ്ഞിട്ട് ഞാൻ പൈസ തന്നാൾ മതിയോ എന്നൊന്ന് അറിയാനാണേ

വാങ്ങിച്ച പൈസ റിട്ടേൺ തരത്തേ ഉള്ളൂ അല്ലേ ഓക്കെ എന്നാൽ ശരി മേഡം ഓക്കെ വിളിക്കാം ഓക്കെ താങ്ക് യു